എൻ്റെ കുടുംബത്തിൽ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത് എല്ലാ മാതാപിതാക്കൾക്കും മക്കൾക്കും വേണ്ടി ആരോഗ്യ പൂർണ്ണമായ കുറച്ച് വിഭവങ്ങൾ ഒക്കെയാണ് സാധാരണ ഉണ്ടാക്കാറ് ബ്രേക്ക്ഫാസ്റ്റ് അരി അരച്ച് പച്ചരി കുതിർത്തിയുള്ള വിഭവങ്ങൾ ആയിരിക്കും മിക്കവാറും ഉണ്ടാക്കാറ് വെള്ളയപ്പം ഇഡ്ഡലി ദോശ അങ്ങനെ ഓരോ വിഭവങ്ങൾ ചിലപ്പോൾ അല്ലാത്തപക്ഷം ഷുഗറുള്ള പേഷ്യൻ്റെനാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ ചപ്പാത്തി അല്ലെങ്കിൽ പച്ചരിച്ചോറ് അങ്ങനെ നിരവധിയായ വിഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കാറുണ്ട് ചോറ് സാമ്പാറ് മത്സ്യമാംസാദികൾ അതുപോലെ നിരവധി പച്ചക്കറി വെച്ചിട്ടുള്ള വിഭവങ്ങലോക്കെ ഉണ്ടാക്കാറുണ്ട് പച്ചക്കറിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സത്കുടുംബമാണിത് കാരണം ഇല വർഗ്ഗങ്ങളിലും ധാരാളം പോഷകാഹാരങ്ങൾ ഉള്ളതിനാൽ കൂടുതൽ ദിവസവും ഇലക്കറികളും അവ പോലുള്ള ഇലക്കറികൾ പോലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഓരോ മനുഷ്യനിലും ആരോഗ്യപ്രദമായ സുഗമമായ അവർക്ക് പ്രായത്തിന് വായ്ക്ക് രുചി തോന്നുന്ന കപ്പ പോലുള്ള പഴയ പൗർവികരുടെ പഴയകാല പൂർവ്വികരുടെ ധാരാളം വിഭവങ്ങൾ ആരോഗ്യപൂർണ്ണത്തിന് ഉചിതമാണല്ലോ കപ്പ പോലുള്ള കപ്പ കാച്ചിൽ ചേമ്പ് തുടങ്ങിയ വിഭവങ്ങൾ ഓരോന്നും നമ്മുടെ വീട്ടിലും ഉണ്ടാക്കാറുണ്ട്